മൃഗങ്ങൾ വളർത്തുകയെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇതിലൊന്നും ഇല്ലാത്തതെന്ന് പറയുന്നത് നമുക്ക് തുവൽ കെടുക്കാം തുവൽ കൊടുത്താൽ നമുക്ക് ഈ ഗ്രാമ പ്രദേശമായതുകൊണ്ട് ആരുംതന്നെ അങ്ങനെ വലുതായിട്ട് മേടിക്കത്തൊ ഒന്നുമില്ല അതൊക്കെ ടൗണേരിയയിലൊക്കെ അത് പറ്റത്തുള്ളു പക്ഷേ നമുക്ക് അങ്ങനെ അതിനെക്കൊണ്ട് അങ്ങനെ ഒന്നും പറ്റത്തില്ല പിന്നെ മുട്ട പാൽ പിന്നെ പ്രായം ചെന്നു കഴിഞ്ഞാൽ നല്ല ഇറച്ചി അങ്ങനെയുള്ളതിനെയൊക്കെ നമുക്ക് കൊടുത്താൽ പിന്നെ കോഴിയിനെ നമുക്ക് കൊടുത്ത് ഓഹ് അതിനെ മുട്ടയിട്ട് കുറേ ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ കൊടുത്തിട്ട് അതിനെ നമുക്ക് കൊടുത്ത് അടുത്തതിനെ വളർത്താം ഇപ്പോഴത്തെ കോഴികളൊന്നും അടയിരിക്കാത്തതുകൊണ്ട് നമുക്ക് മുട്ട മാത്രം കൊടുത്ത് കുറെ ആയി കഴിയുമ്പോൾ അതിനെ നമ്മൾ വിൽക്കത്തെ ഉള്ളു അല്ലെങ്കിൽ ചത്തുപോവും അങ്ങനെയേ ഉള്ളു അപ്പോൾ ആവുമ്പം പശുവിനെ ഒക്കെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല ആദായമാണ് കുഞ്ഞുങ്ങളെ കൊടുത്തും പാൽ കൊടുത്തും ഒക്കെ നല്ല ആദായമാണ് പക്ഷേ മിഷെനിൽ കറക്കാനാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഫാം നടത്തി ആൾക്കാരെ വെക്കാനുണ്ടെല്ലോ ഇപ്പം മിഷ്യനൊക്കെ കിട്ടും പാലെടുത്ത് കറന്ന് നമ്മൾക്ക് മിഷ്യൻ വഴി തന്നെ പാലെടുക്കാം മിൽമകളിൽ കൊടുക്കാം വീട് പണ്ടത്തെ പോലയല്ല ഇന്ന് ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും എല്ലാവരും പാൽ ഉപയോഗിക്കുന്നവരാണ് പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ആരും ഉപയോഗിക്കത്തില്ല ഇപ്പോഴെന്നു പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പാൽ പാൽ ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് നാട്ടിൻപ്രദേശം ആയാലും ഗ്രാമപ്രദേശം ആയാലും അല്ലെങ്കിൽ ടൗണാണെന്ന് പറഞ്ഞാലും എല്ലായിടത്തുംതന്നെ പാൽ പശുവിനെ വളർത്തിയാൽ പാൽ നമുക്ക് ശരിക്ക് വിറ്റു പോകും നമുക്ക് നല്ല ഒരു സമ്പാദ്യം ആണ് ഒരു അതിനെ പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമുക്ക് കൊടുത്ത് ഉണ്ടാക്കാം നല്ല ഒരു ഇതാണ് പിന്നെ ആണെങ്കിൽ കോഴി ആണെങ്കിലും നമുക്ക് കോഴി ഫാം കോഴിഫാമിനാണെങ്കിലും ഇപ്പം എവിടെ നിന്നെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് വല്ല കുറച്ച് കാശടച്ചുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഇതൊക്കെ കിട്ടിയഴിഞ്ഞാൽ മുട്ട അതിൻ്റെ മാംസങ്ങളും ഒക്കെ കൊടുത്ത് നമുക്ക് ഉണ്ടാക്കാം കാശുണ്ടാക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് കാശൊക്കെ ഇഷ്ടം പോലെ ഒരു വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നതാണ് നല്ലൊരു തൊഴിലാണ്